ഹലോ ആരാണ് ആ അതെ അതെ ആ പറയണം ആ മനസ്സിലായി മനസ്സിലായി ആ ആ ഓ അതെയോ ആ എന്ത് എന്തെങ്കിലും പുറത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചിരുന്നോ

ആ അത് ഇതിന് മുമ്പ് ഇങ്ങനെ പുറത്ത് നിന്ന് ഫുഡ്ഡ് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ

ഓ ഛർദി ഉണ്ടോ

ആ അപ്പെൻഡിക്സ് നോക്കാം നമുക്ക് ഞാൻ എന്തായാലും ഇല്ലേ ഒരു മരുന്ന് പറഞ്ഞ് തരാം അത് എന്തായാലും വാങ്ങിച്ച് വെയ്ക്ക്

ആ പെപ്റ്റാ ബിസ്മോൾ ആ അത് ടു ഹണ്ട്രഡ് എം ജീടെ വാങ്ങിച്ചോ പിന്നെ മെസ്സാലിൻ ഒരു ഫൈവ് ഹണ്ട്രഡ് എം ജീ ടെയും വാങ്ങിച്ചോ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്തായാലും കഴിച്ച് നോക്ക് എന്തെങ്കിലും ഒന്ന് ആ അതെയോ എന്നാൽ എന്നാൽ ഇന്ന് എന്നാൽ എന്തായാലും പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലേക്ക് വന്നോ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ അത് വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ പറഞ്ഞേക്കാം നീ വന്ന് ആ ഞാൻ ആ വേഗം വന്നോ ആ പേടിക്കണ്ട പേടിക്കണ്ട ആവശ്യം ഒന്നും ഇല്ല നമുക്ക് എല്ലം ശരിയാക്കാം ഒന്നും പേടിക്കണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പെട്ടെന്ന് തന്നെ വന്നോ ഓക്കെ ശരി